തീർച്ചയായും പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയാണെങ്കിൽ തന്നെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും വീട്ടിലൊക്കെ എന്തെങ്കിലും ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് ഒത്തിരി സ്ട്രസ്സ് അനുഭവപ്പെടുമ്പോഴുമൊക്കെ ഞാൻ പാട്ട് കേൾക്കാറുണ്ട് കാരണം പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരാശ്വാസം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പഴും പാട്ട് കേൾക്കാറുണ്ട് കൂടുതലും മെലഡി സോങ്സ് ആണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ ഞാൻ ഡാൻസ് കളിക്കാറുണ്ട് ഒരു ഡാൻസർ കൂടി ആയതുകൊണ്ട് എല്ലാത്തരം ഡ മീൻസ് ഡിസ്ക്കോ അങ്ങനെയുള്ള ടൈപ്പ് പാട്ടുകളും ഒക്കെ എനിക്കിഷ്ടമാണ് എന്നാലും കൂടുതലും കേൾക്കാറുള്ളത് കേ കേട്ട് ആസ്വദിക്കുന്നത് മെലഡി സോങ്സ് ഒക്കെയാണ് പിന്നെ എപ്പോഴും അതായത് എനിക്ക് ഒഴിവുസമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു പാട്ട് കേൾക്കാനാണ് സമയം ചിലവഴിക്കാറുള്ളത് അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഗായകർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് യേശുദാസ് യേശുദാസ് സാറിനെ എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ ചിത്ര ചേച്ചി സുജാത ചേച്ചി എ ആർ റഹ്മാൻ അതുപോലെ എന്താ പറയാ വിധുപ്രതാപ് സിത്താര അങ്ങനെ ഒരുപാട് നീണ്ട നിര തന്നെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഗായകരുടെ പേർ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദിയിൽ ആയിക്കോട്ടെ അർജിത് സിംഗ് ആസിഫ് ആസിഫ് അങ്ങനെ ഒരുപാട് ഒരുപാട് എല്ലാത്തരം ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ആസ്വദിക്കാറും ഉണ്ട് എൻ്റെ ഫോണിൽ ഒരുപാട് പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്കിഷ്ടമുള്ള സമയത്തൊക്കെ എൻ്റെ മൂഡിന് ഡിപെൻഡ് ചെയ്ത് ഞാൻ എപ്പോഴും പാട്ട് കേൾക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ ആ ഒരു ദേശത്തെ കാര്യം എടുക്കാണെന്നുണ്ടെങ്കിൽ നാടൻ പാട്ടുകളെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഒരു ഒന്നിച്ചിരുന്ന് ആസ്വദിക്കുന്നതാണ് ഈ നാടൻപാട്ടുകൾ എന്ന് പറയുന്നത് അമ്പലത്തിലൊക്കെ ഉത്സവങ്ങൾ ആയിക്കോട്ടെ പെരുന്നാൾ ആയിക്കോട്ടെ അങ്ങനെ എന്തൊക്കെ വന്നാലും ആൾക്കാർ എപ്പോഴും ഇതേ പോലെയുള്ള നാടൻ പാട്ടുകൾക്ക് എന്നും ഒരു മുൻതൂക്കം കൊടുക്കാറുണ്ട് എല്ലാവരും ഒരേ പോലെ തന്നെ ആസ്വദിക്കാറുള്ള ഒന്നാണ് ഈ നാടൻപാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ കൃഷി ഇതായത് കൊണ്ട് തന്നെ കൃഷിപ്പാട്ടുകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അത് ഈ വയസ്സുചെന്ന അമ്മമാർക്ക് മുതൽ കൊച്ചുകുട്ടികൾക്ക് വരെ അവർ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴാണേൽ തന്നെ നാടൻപാട്ട് കേൾ കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ആസ്വദിക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതുപോലെയുള്ള പരിപാടികൾക്ക് പങ്കെടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പാട്ടിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഒരുപാട് ഇഷ്ടത്തോടെയാണ് ഞാൻ പാട്ടു കേൾക്കാറുള്ളത് പിന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഇന്നു കൂടി ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ പാട്ട് കേട്ട ഒരു വ്യക്തിയാണ് അപ്പം എൻ്റെ മൂഡിനെ ഡിപ്പൻറ്റ് ചെയ്ത് എനിക്ക് എങ്ങനെയുള്ള പാട്ടാണ് കേൾക്കാൻ കുറച്ചു കൂടി ഇഷ്ടം തോന്നുന്നത് എന്നു വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ഒരാശ്വാസം കിട്ടാറുണ്ട് പാട്ട് കേൾക്കുമ്പോളായിക്കോട്ടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആണെങ്കിലും സന്തോഷിച്ചിരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ പാട്ടു കേൾക്കാറുണ്ട് ഒരുപാട്